ആ പറഞ്ഞോട്ടെ ആരാ അതെ ആ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ വേഗം കുറിക്കാലോ മകളെ മകളെ കല്യാണത്തിന് ആണോ ആ അടുത്ത മാസം ആ ആ സെപ്റ്റംബർ മാസം ഏത് മാസത്തിലാ സെപ്റ്റംബർ മാസത്തിലാണോ ചിങ്ങ മാസം ചിങ്ങ മാസം ചിങ്ങ മാസത്തിൽ ഏത് ഏതാ ഉദ്ദേശിക്കുന്നത് എന്നത്തേക്കാ ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ സമയം നോക്കാം ഇരുപതാം തിയ്യതി ഇരുപതാം തിയ്യതി ഏത് ദിവസമാ വ്യാഴം

അ ആ ശനിയാഴ്ച ശനിയാഴ്ച ശരി ശരി അപ്പോൾ അത് എന്നാൽ ഈ കുഞ്ഞിൻ്റെ നിങ്ങളെ ഈ ജാതക പൊരുത്തം ഒക്കെ നോക്കിയതാണോ മനപ്പൊരുത്തം അവർ തമ്മിലുള്ള ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ആ അത് നോക്കണം അപ്പോൾ അത് നോക്കി അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ദിവസങ്ങൾ കുറിക്കുന്നത് അതുംകൂടെ ഒക്കെ ഒന്ന് നോക്കണം നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ ആ അപ്പോഴത് ഈ ശനിയാഴ്ച താല്ക്കാലികമായിട്ട് അത്ര നല്ലൊരു ദിവസമായി കാണുന്നില്ല വേറൊരു ദിവസത്തേക്ക് നമുക്ക് ഒന്ന് മാറ്റിയാലോ ആ വ്യാഴാഴ്ച കൊള്ളാം വ്യാഴാഴ്ച പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് ശുഭ മുഹൂർത്തം ഉണ്ട് അപ്പോൾ അന്നത്തേക്ക് നമുക്ക് ചെയ്യാം ഓ അത് ചെയ്യാം കുഴപ്പം ഇല്ല ആ അപ്പോഴേ ആ പൊരുത്തം പൊരുത്തം നോക്കുമല്ലോ നമ്മൾ പൊരുത്തം നോക്കും

ജാതകം കൊണ്ട് വരണം രണ്ട് പേരുടെയും ജാതകം കൊണ്ട് വരണം ജാതകം കൊണ്ട് വന്നിട്ട് അവർ എത്ര പൊരുത്തം ഒത്തു വരും നമുക്ക് നോക്കിയിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ആ അപ്പോൾ അത് കൊണ്ട് വരുക നമുക്ക് അതോടനുബന്ധിച് തന്നെ ആ കല്യാണം നമുക്ക് ഇവിടെ വെച്ച് നടത്തണം അമ്പലത്തിൽവെച്ച് നടത്തണം എന്ന് വല്ല നിർബന്ധവും ഉണ്ടോ ആ പിന്നെ പത്തിലോ പത്തില് പത്തും കിട്ടിയാൽ അത്രയും നല്ലതല്ലെയോ ഏറ്റവും കുറഞ്ഞത് ഒരു എട്ടെങ്കിലും വരണം

അങ്ങനെ നോക്കണം പിന്നെ ചൊവ്വാ ദോഷം ഉള്ള കുട്ടിയാണോ ചൊവ്വാദോഷം ഉള്ള കുട്ടിയാണോ എന്ന് നോക്കണം ആ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ചെയ്യേണ്ടത് എപ്പളാ അങ്ങനെ വന്നാട്ടെ ആ അപ്പോൾ വന്ന് നമുക്കതക്കെ നോക്കിയിട്ട് നമുക്ക് പൊരുത്തം ഒത്തു വരുകയാണെകിൽ അടുത്ത വ്യാഴാഴ്ചത്തക്കേക്ക് നമുക്ക് നടക്കത്തക്ക സംവിധാനം ഉണ്ടാക്കാം അത് നമ്മുടെ സൗകര്യം അമ്പലത്തിലെ നിങ്ങൾ ഹോളിൽ വിളിച്ചാലും അവർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാലും എവിടെ നടത്തിയാലും ഞങ്ങൾ വന്ന് പൂജ കർമങ്ങൾ നടത്തിത്തരും അത് നമ്മുടെ വീട്ടുകാർ സൗകര്യം ആണ് ഇവിടെ നടത്തുന്നതിന് ഒരു വിരോധവും ഇല്ല ഹോളിൽ വെച്ച് നടത്തുന്നതിനും ആ മാത്രമേ ഒക്കൂ ചെറുക്കൻ്റെ ആ നാൾ നോക്കിയെങ്കിൽ മാത്രമേ ചൊവ്വാദോഷം ഉണ്ടോ പൊരുത്തക്കേട് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം ഉം അതനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ

വേറെ കുഴപ്പങ്ങൾ വെച്ചാൽ വേറെ വേറെ കൊഴപ്പോ എന്തുവ ചൊവ്വ ഈ ജാതകം ഒത്തു വരുകയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പങ്ങൾ വരത്തില്ല പിന്നെ ജീവിതം അല്ലയോ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ച് പോയാൽ കുഴപ്പം ഒന്നും ഇല്ല എം ആ തീർച്ചയായും ആ പിന്നെ അതിനല്ലെയോ നമ്മൾ ഇരിക്കുന്നത് എന്നാൽ ഓക്കേ ഓക്കേ ആ വന്നാൽ മതി വന്നാൽ മതി ഓക്കേ